ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുകയായിരുന്നു ഞാൻ പുതിയതായിട്ട് ജി എസ് റ്റി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കാരണം അന്ന് കൊടുത്തിരുന്ന സമയത്ത് ഒരുപാട് പിഴവുകൾ സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ടുതന്നെ എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് ഒരു പ്രൂഫ് തരികയായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഉപകാരമായിരുന്നു ഞാനിന്ന് ജി എസ് റ്റി പുതിയൊരു സംരംഭകനായതുകൊണ്ടുതന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ പൂർത്തിയായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും ഉല്ല എൻ്റെ ജി എസ് റ്റി രജിസ്ട്രേഷൻ പൂർത്തിയായോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായോ ഇല്ലയോയെന്നുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി തരികയായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഉപകാരമായിരുന്നു